ഏതൊക്കെ പുതിയ സംരംഭങ്ങളാണ് നിങ്ങളെ പ്രദേശത്ത് ആരംഭിക്കാന് നിങ്ങള് എനിക്ക് കാറ്ററിങ് സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കുക്കിങ്ങിനോടൊരുപാട് ഇഷ്ടമുണ്ടായതു കൊണ്ട് എനിക്ക് കാറ്ററിങ് സർവീസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതാവുമ്പോള് കുറച്ച് വീട്ടമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അവർക്കും എനിക്കും അതൊരു വരുമാനമാകും അങ്ങനെ ചെയ്യാനാഗ്രഹമുണ്ടെനിക്ക് പിന്നേ അതുപോലെതന്നെ തയ്യല് തയ്യല് കൂട്ടായ്മയായിട്ട് ഒരു സംരംഭം ചെയ്യാനും താൽപര്യമുണ്ട് തയ്യല് എന്ന് പറയുമ്പോള് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് പിന്നെ അതറിയാവുന്നവരൊക്കെ കൂടെ ചേർത്തിട്ടാണെങ്കിലും നമ്മള്ക്കൊരു ഡിസൈൻ തയ്ക്കുന്ന ഒരു സംരംഭം തുടങ്ങുന്ന ആണെങ്കിൽ അത് എനിക്കും അവർക്കും ഒരു എന്താണു പറയുക ഒരു വരുമാനമായിരിക്കും ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള ഒരു രീതിയില് നമുക്കത് ചെയ്യാം ഇപ്പോഴെന്ന് വെച്ചാല് വനിതാ സംരംഭക്കാർക്ക് സർക്കാരും പിന്തുണയ്ക്കുന്ന സമയമാണ് കൂട്ടായ ലോണുകളും ഒക്കെത്തന്ന് കുടുംബശ്രീ മുഖേനെയായാലും ഒരുപാട് ലോണുകളും കാര്യങ്ങളും ഇപ്പോള് സർക്കാര് നമുക്കു തരുന്നുണ്ട് അപ്പോള് അതൊക്കെ വേടിച്ചിട്ട് വേണമെങ്കില് നമുക്കൊരു കൂട്ടായ സംരംഭം തുടങ്ങാം അച്ചാറ് കമ്പനി വേണമെങ്കില് അച്ചാറ് ഇടുന്നത് വേണമെങ്കില് ചെയ്യാം പിന്നെ ഈ ആർട്ട് ആൻ്റ് ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ എന്താണ് കരകൗശല വസ്തുക്കളുണ്ടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെന്താണ് എന്താണ് പൊരിപ്പ് കട തുടങ്ങാം കുടുംബശ്രീ ഒരു മുഖേന കിട്ടുവാണെങ്കില് നമുക്കൊരു ചായക്കട പോലെ ചെയ്ത് ഏത്തക്കാപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പൊരിപ്പും കാര്യങ്ങളും ചെയ്ത് ചായ കച്ചവടം നമുക്ക് ചെയ്യാം അങ്ങനെ ഒരുപാടൊരുപാട് വ്യവസകള് ഇപ്പോള് ഇപ്പോള് നമുക്ക് നമ്മള് പണ്ട് പഠിക്കുന്നണക്ക് കുടിൽ വ്യവസായം പോലെ നമ്മടെ വീട്ടിൽ നിന്ന് നമുക്കു ചെയ്യാവുന്ന രീതിയില് ഒരുപാട് വ്യവസായങ്ങൾ നമുക്ക് ഇപ്പോള് ചെയ്യാൻ പറ്റും അച്ചാറ് ദോശ ദോശമാവ് അപ്പമാവ് കച്ചവടം നടത്താം അതുപോലെതന്നെ കോഴിയെ വളർത്തി മുട്ട കച്ചവടം ചെയ്യാം പശുവിനെ വളർത്തി നമ്മള്ക്ക് പാല് സൊസൈറ്റിയിലൊക്കെ പാല് കൊടുക്കാം അങ്ങനൊരുപാട് കാര്യങ്ങള് നമുക്ക് ഇപ്പോഴത്തെ രീതിയില് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോള് ഒരാളെ മാത്രം നമുക്ക് ആശ്രയിച്ച് ജീവിക്കേണ്ട വരുമാനം ഇപ്പോള് വരുന്നില്ലല്ലോ നമുക്ക് വേണമെങ്കില് കൂട്ടായ ഒരു തൊഴിലുണ്ടെങ്കില് നമുക്കെല്ലാവർക്കും അതിനുള്ള ഇത് കിട്ടും